ഗുഡ് മോർണിംഗ് ഞാൻ ഈ സമയം ചിലവാക്കുന്നത് എനിക്ക് കോഴി വളർത്തലിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കാരണം ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു കൊച്ചു മഠമാണ് അപ്പ പല തരത്തിലുള്ള ബിസിനസ്സ് നടക്കാനു ള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് കോഴി ആവുമ്പം അതിനെ അഴിച്ച് വിടാം അപ്പം എന്താണ് തോട്ടത്തിലോ അല്ലെങ്കിൽ പറമ്പുകളിലൊക്കെ പോയിട്ട് കുറേയൊക്കെ അത് തിന്നു കൊണ്ട് വരാം പിന്നെ ഞങ്ങൾക്ക് കോഴി വളർത്തുക എന്ന് പറഞ്ഞാൽ അതിന് മുട്ട കിട്ടത്തില്ലേ അത് ഏകദേശം എനിക്ക് ഒരു നാൽപ്പത് കോഴിയോളം അവിടെ ഉണ്ട് അപ്പം ഈ കോഴികളെ വളർത്താനായിട്ട് പിന്നെ പിന്നെ അത് കടയിൽ ഭക്ഷണം വാങ്ങിക്കാനെന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റിലി ആണ് വില ഉള്ളതാണ് അപ്പം ഞങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഞങ്ങൾ രണ്ട് ചാക്ക് പിന്നെ കോഴിയുടെ തീറ്റ വാങ്ങിച്ചാൽ ആ ഇത് ഇതിങ്ങളെ വളർത്താൻ പറ്റത്തുള്ളു കാരണം അത്ര ചിലവുണ്ട് അതിനാൽ തന്നെ ഞങ്ങൾ മറ്റു താറാവിനെയോ മുയലിനെയോ ഒക്കെ വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിലും ഞങ്ങൾക്ക് അതിനുള്ള മതിയായ പൈസ ഇല്ല ഏ അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും കോഴി രാവിലെ പിന്നെ ഒരു എട്ട് മണി എട്ടരയൊക്കെ ആവുമ്പോഴേക്കും കോഴിക്ക് കോഴിയെ ഞങ്ങൾ തുറന്നിടും ചില അവസരങ്ങളിൽ പറമ്പിലേക്ക് അഴിച്ചു വിടും പക്ഷെ കീരിയുടെയൊക്കെ ശല്യം കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നാലേ കോഴികൾ നമുക്ക് പിന്നെ അത് വേറെ ഒന്നും പിടിക്കപ്പെടാതെ നമുക്ക് അത് കിട്ടുകയുള്ളൂ അപ്പോഴും കോഴിയ്ക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണം കൊടുക്കുക എന്നതാണ് ഒരു ധർമ്മം അതു പോലെ കോഴിയുടെ തീറ്റ മാത്രം കൊടുത്താൽ ഞങ്ങൾക്ക് അതിനെ വളർത്താനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അപ്പം ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ കോഴി തന്നെ ആണ് വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ കോഴിയെ തീറ്റാനായിട്ട് പിന്നെ ഞാൻ പോകും അതിൻ്റെ കൂടെ ഇവിടെ പിന്നെ പാചകം പാചകത്തിനായ് വരുന്ന മകളുണ്ട് സരിത എന്ന് പറഞ്ഞ കൊച്ച് അത് വരും അതുപോലെ ഞങ്ങളുടെ നെയ്ബറായിട്ട് ഒരു കൊച്ച് ആൻസി വരും അപ്പം ഇവർ എല്ലാം ഞങ്ങൾള് മാറി മാറി ഇതു പോലെ തന്നെ കോഴികളുടെ അടടുക്കൽ കോഴിയ്ക്ക് വേണ്ട പരിചരണങ്ങൾ ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മുട്ട അട വച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും അതു പോലെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ മുട്ട ഉണ്ടെങ്കിൽ പുറത്തോ അല്ല ഞങ്ങളുടെ ഇടവകയിൽ ആളുകൾക്ക് കൊടുക്കും അതിൽ നിന്നും കിട്ടിയ വരുമാനത്തിൻ്റെയൊക്കെ ഒരു ചെറിയ തുകയെ ഉള്ളു അത് അതും പിന്നെ മഠത്തിലെ പൈസയും കൂടെ കൂട്ടിയാണ് കോഴിക്ക് വേണ്ട ആഹാരങ്ങൾ ഞങ്ങൾ തയ്യാറാക്കുന്നത് പിന്നെ കോഴിയെ അഴിച്ചു വിട്ടാലും ഈ കീരിയും ചിലപ്പ പാമ്പുമൊക്കെ കാണുമ്പോഴും ഞങ്ങൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് വലിയ ഒരു പ്രാവശ്യം തന്നെ അഴിച്ചു വിട്ടപ്പോൾ പട്ടിയാണ് പിടിച്ചത് അപ്പം ആ പട്ടി പിടിച്ചപ്പോൾ തുടങ്ങി ഞങ്ങൾക്ക് കുറേയും കൂടെ ശ്രദ്ധയായി അങ്ങനെ കോഴി ഞങ്ങൾക്ക് ഒരു ആധായമായിട്ട് മാറി വലിയ ആദായം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ശുദ്ധമായ മു ട്ടയും അതു പോലെ ഫ്രഷായിട്ടുള്ള ഇറച്ചിയും കിട്ടും അതാണ് അത് അത് മാത്രമേ ഉള്ളു ഇതിൻ്റെ ബെനഫിറ്റ് പിന്നെ നമ്മൾക്ക് വേറെ മരുന്നുകൾ കൊടുക്കാത്ത കൊഴിയൊക്കെ കിട്ടുമല്ലോ എന്ന് ഓർത്താണ് ഞങ്ങൾ വളർത്തുന്നത് ഇപ്പം എനിക്ക് വളരെ ഇൻട്രെസ്റ്റ് ആയി കാരണം ആദ്യമൊക്കെ അതിൻ്റെ പുറകേ നടക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം അത് നോക്കിയാലും കുഴപ്പമില്ലെന്ന് മനസ്സിലായി അപ്പം അതുകൊണ്ട് ഈ കോഴി ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ജീവിത ആവശ്യമാണെന്ന് മനസ്സിലാക്കി ശരി